ഹലോ ഇലക്ട്രിഷ്യൻ അല്ലെ ഓക്കേ ഓക്കേ അപ്പോൾ എനിക്ക് ഞാൻ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ ഈ തോപ്രാം കുടിയിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഞാനൊരു വീട് പുതുക്കി പണിത് നല്ല സെറ്റപ്പാക്കി കൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിനകത്ത് തന്നെ ചില ഇലക്ട്രിക്കല് വർക്കുകൾ കുറേ വരുന്നുണ്ട് അപ്പോൾ അത് മൊത്തം ചെയ്യണമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് എനിക്ക് എങ്ങനെ ആണ് മൊത്തം സാധനങ്ങൾ കൊണ്ട് വന്നു ചെയ്തു തരുമോ ഇനി അതല്ലെങ്കിൽ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ച് വച്ചിട്ട് എനിക്ക് ചെയ്ത് തരുവോ അതെങ്ങനെയാണ് എന്താ സമയവും സാഹചര്യവും ഉണ്ടോ എനിക്കൊരു രണ്ടുമാസത്തിനുള്ളിൽ ഈ വര്ക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഇതൊന്നു ചോദിക്കാന് വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പോൾ അത് എങ്ങനെ ആണെന്ന് ഒന്ന് പറയാമോ ആ രണ്ടുമാസത്തിനുള്ളിൽ തീര്ത്താൽ മതി അമല ജംഗ്ഷന് അമല ജംഗ്ഷന് മ് മ്ഹ്

മ്ഹ് മ് ഞാൻ എനിക്ക് നല്ല നല്ല സാധനങ്ങൾ വേണം സാധനങ്ങളുടെ ക്വാളിറ്റിയില് യാതൊരു വ്യത്യാസവും വരാന് പാടില്ല അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ വേണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ വാങ്ങിക്കാന് ഇനി അതല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചു തന്നെ ഏൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളത് തന്നെ മേടിച്ചു

ഇത്തിരി പൈസ കൂടുതലാണേലും കുഴപ്പം ഇല്ല ആ ഇത്തിരി പൈസ കൂടുതലാണേലും സാരം ഇല്ല എന്നാലും ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങൾ വെച്ച് വര്ക്ക് ചെയ്ത് തരണം ഇപ്പം ഏകദേശം ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കുവായിരിക്കും ഒരാഴ്ച കൊണ്ട് ചെയ്തു തീര്ക്കും അല്ലേ ഓക്കെ ഓക്കെ ഏകദേശം മൊത്തം ചെയ്തു തീരുമ്പോൾ അതിന്റെ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ പക്ഷെ അത് വന്നു നോക്കിയാലെ അറിയാന് പറ്റുകയുള്ളോ ആ ഒന്നിന് വെളിയിൽ പോകുമോ അത്രയും വരും അല്ലേ അ അ ആ ആ ആ ആ അത്രയും ഒന്നിന്റെ ഉള്ളില് നിൽക്കുവല്ലോ അല്ലേ ആ ആ ആ ആ ഹ്

ഞാൻ വീട്ടിൽ കാണും വീട്ടിൽ കാണും ആ

ആ ആ ആ ആ ആ ഓക്കേ ആയിക്കോട്ടെ എന്നാൽ ആ ആ അ ആ ഓക്കേ ഓക്കേ